കുട്ടികളെ കൃഷിയിലേക്ക് നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മുടെ മാതാപിതാക്കളെ അവരെ കൃഷി ഇടത്തേക്ക് കൊണ്ടു പോയിട്ട് പണി എടുപ്പിക്കണം ഇപ്പോഴത്തെ കാലഘട്ടത്തിയുള്ള പിള്ളേർക്കൊന്നും കൃഷിയിലേക്ക് ഇറങ്ങാൻ തന്നെ താല്പ്പര്യം ഇല്ല എല്ലാവരും പഠിച്ചു ജോലി മേടിച്ചു ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്തു ബാങ്കിലും അവിടെയെക്കെ പോവുന്നു അല്ലെങ്കിൽ വിദേശത്ത് പോയി അവിടെ സെറ്റിൽ ആവുന്നു ഇതാണ് മെയിൻ പരിപാടി കൃഷിയൊന്നും ഇപ്പം ആരും അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പോഴത്തെ പിള്ളേര്ക്ക് കൃഷിയോടൊന്നും താല്പ്പര്യം ഇല്ല അതിൻ്റെ മെയിൻ പ്രശ്നം മാതാപിതാക്കളുടെ ശ്രദ്ധ കുറവാണ് ഈ മാതാപിതാക്കൾ പണ്ട് തൊട്ടേ പിള്ളേരൊക്കെ കൃഷിയിലേക്ക് ഇറക്കുവാണെങ്കിൽ അവർ നല്ല രീതിയിൽ പണിയെടുത്ത് വന്നേനെ വാഴ ആയിക്കോട്ടെ കാപ്പി ആയിക്കോട്ടെ കുരുമുളകോ കവുങ്ങോ തെങ്ങോ എന്താണെന്ന് വച്ചാൽ അവർ ചെയ്തു പക്ഷെ നമ്മുടെ മാതാപിതാക്കൾ പറയും ഞങ്ങളോ ഇങ്ങനെ ആയി ഇനി നിങ്ങളോ ഇതുപോലെ കഷ്ടപ്പെട്ടു പണി എടുക്കേണ്ട എന്ന് അതുകൊണ്ട് എന്ത് ചെയ്യും പിള്ളേർ ആരും കൃഷിയിലേക്ക് ഇറങ്ങില്ല അവർക്ക് താല്പ്പര്യം ഇല്ല അതുകൊണ്ട് അവർ അച്ഛൻ്റെ കഷ്ടപ്പാടോ അമ്മേൻ്റെ കഷ്ടപ്പാടോ ഒന്നും കാണില്ല അവരുടെ ലൈഫ് എങ്ങനെ അടിച്ചു പൊളിക്കാമോ അത് മാത്രമേ ചിന്തിക്കുകയുള്ളൂ എന്നാൽ കൃഷിയിൽ പണിയെടുത്ത് കഷ്ടപ്പെട്ടു വന്നവന് അത് ശരിക്കും മനസ്സിലാവും അവന് കഷ്ടപ്പെടാൻ ഒരുപാട് ഇഷ്ടം ഉണ്ടാവും പിന്നെ അവന് മനസ്സിലാവും പണി എങ്ങനെയാണ് എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം അത് അവന് നല്ല പിടി കിട്ടും നമ്മൾ കുട്ടികളെ എങ്ങനെ എങ്കിലുമൊക്കെ കൃഷിയിലേക്ക് ആകർഷിക്കണം എല്ലാ പണിയും നമ്മൾ എടുക്കണം ലൈഫി നമ്മൾ കഷ്ടപ്പെട്ടാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുകയുള്ളു അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെക്കെ നമ്മൾ ചെയ്യണം അതാണ് നമ്മുടെ ജീവിതം